ഞാൻ നിർമ്മിക്കുന്ന വസ്ത്രത്തിന് പ്രത്യേക ഡിസൈൻ ഞാൻ കണ്ടു തന്നെയാണ് മനസ്സിലാക്കുക കണ്ടു തന്നെയാണ് മനസ്സിലാക്കാറുള്ളത് പ്രത്യേകിച്ച് എൻ്റെ കുട്ടികളുടെ ക്ലാസ്സിലുള്ള കുട്ടികളേയും ആ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ ഞാൻ കണ്ടാണ് കൂടുതലും തയ്ക്കാറുള്ളത് ഞാൻ എനിക്ക് എപ്പോഴും ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ തയ്യലിനെ പറ്റി പിന്നെ പരിശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ വരുന്നത് ഒന്നാമത് എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ആയിരുന്നു അതായത് എൻ്റെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മുതൽ കൊച്ച് കുഞ്ഞിനേയും പിന്നെ കുഞ്ഞുങ്ങൾക്ക് പിന്നെ ആറ് ചെറിയ ഉടുപ്പുകൾ തയ്ച്ച് കൊണ്ടാണ് ഞാനെൻ്റെ പിന്നെ അതായത് എൻ്റെ മാരേജിന് ശേഷമുള്ള എൻ്റെ തയ്യൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞിലേ ഒക്കെ അമ്മ പാവാടയൊക്കെ തയ്പ്പിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു പാവാട പെറ്റിക്കോട്ട് ഇതൊക്കെ ഞങ്ങൾ തന്നത്താനെ തയ്ക്കണമായിരുന്നു കുഞ്ഞിലേ തന്നെ തയ്ക്കണമായിരുന്നു ഞങ്ങൾക്ക് മെഷീൻ ഉള്ളതുകൊണ്ട് ആ ഞങ്ങൾ പെൺകുട്ടികളായിരുന്നത് കൊണ്ടും ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് തയ്ക്കണമെന്ന് നിർബന്ധം പിടിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ തന്നെ വെട്ടി തരുന്നത് നിക്കർ പാവാട പെറ്റിക്കോട്ട് ഇതൊക്കെ ഞങ്ങൾ തന്നെ തയ്ക്കും പിന്നീട് ഞങ്ങൾ യൂണിഫോമും തയ്ച്ചു ഞങ്ങളെ കൂടെയുള്ള കുട്ടികൾക്ക് ഞങ്ങൾ യൂണിഫോം തയ്ച്ച് കൊടുക്കാറുണ്ടായിരുന്നു പിന്നീടിങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ കൊച്ച് എനിക്ക് ആദ്യത്തെ പെൺ കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിന് ആറ് ഒരു ഷോള് കൊണ്ട് ആറ് ചെറിയ ഉടുപ്പുകൾ കുട്ടിയുടുപ്പുകൾ തയ്ച്ചുകൊണ്ട് ഞാനത് കൈ തയ്യലാണ് തയ്ച്ചത് അങ്ങനെ തയ്ച്ച് കൊണ്ടായിരുന്നു പിന്നീടെൻ്റെ കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള ഉടുപ്പ് നിർമ്മാണത്തിൻ്റെ ആരംഭം പിന്നീട് കൊച്ച് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് തയ്ച്ചു തുണിയെടുത്തവർക്ക് ചേരുന്ന വെളുത്ത നിറവും ഇരുണ്ട നിറമുള്ള രണ്ട് കുട്ടികളാണവർക്ക് രണ്ട് പേർക്കും ചേരുന്ന രീതിയിൽ അവരുടെ കളറിന് അടിസ്ഥാനമാക്കിയുള്ള ഡ്രസ്സ് ഒരാൾ വണ്ണമുള്ളതും ഒരാൾ വണ്ണമില്ലാത്തതുമായിരുന്നു ആ രീതിയിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് അവർക്ക് ചേരുന്ന രീതിയിലുള്ളത് വണ്ണമുള്ള കുട്ടിക്ക് കൂടുതൽ ഡാർക്ക് കളറും വണ്ണമില്ലാത്ത കുട്ടിക്ക് ഇളം കളറും ഞാൻ തിരഞ്ഞെടുക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവരുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പിന്നെ ഉടുപ്പുകളിട്ടുകൊണ്ട് ഇവർ സ്കൂളിലും പള്ളിയിലുമൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ എന്നോട് അവർ പിന്നെ ആഗ്രഹിച്ച് പറയുകയും ഞാൻ തയ്ച്ച് കൊടുക്കുകയും ചെയ്ത് പിന്നീട് സാരി ബ്ലൗസ് പിന്നെ ഞാൻ പഠിച്ചു സാരി ബ്ലൗസ് തയ്ക്കാൻ തുടങ്ങി പിന്നീട് പിന്നെ അങ്ങനെ ആണ് പിന്നീട് ഞാനിട്ടുകൊണ്ട് ചെല്ലുന്ന ഡ്രസ്സുകൾക്കൊക്കെ ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ട് ആ രീതിയിലുള്ള ഡ്രസ്സുകൾ എന്നോടെൻ്റെ കൂട്ടുകാരൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങി അങ്ങനെ ഞാൻ തയ്ച്ച് കൊടുക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ ചുരിദാറുകൾ തയ്ക്കാൻ തുടങ്ങി വേറെ സാധാ ചുരിദാറിൽ നിന്നും ഇന്നത് പലാസ പാൻ്റ് ഒരേ രീതിയിലുള്ള മേലിലും താഴെയുമൊക്കെ ഒരേ രീതിയിലുള്ളത് ടി വിയിൽ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല ഡ്രെസ്സുകളുടെ ബ്രാന്റുകൾ ഞാൻ ഇഷ്ടപ്പെടാനും അതുപോലെ തന്നെ തയ്ച്ച് കൊടുക്കാനും തുടങ്ങി അങ്ങനെ ഇന്ന് എനിക്ക് ഓൺലൈൻ ഉപഭോക്താക്കൾ ഇല്ല എങ്കിലും പിന്നെ അവർ എന്നോട് എൻ്റെ ഈ ഡ്രസ്സുകളൊക്കെ കണ്ട് എന്നോടിങ്ങോട്ട് ആവശ്യപ്പെടുന്നവർക്കായിട്ട് ഞാൻ തയ്ച്ച് കൊടുക്കാനും പറഞ്ഞ് കൊടുക്കുവാനും ഒക്കെ തുടങ്ങി അങ്ങനെ എൻ്റെ കുട്ടികളും ഞാൻ ജീവിക്കുന്ന സമൂഹവും തന്നെയാണെന്നെ ഈ ഇതിനുള്ള പുതിയ പുതിയ പാറ്റേണുകൾ കണ്ടുപിടിക്കാനും അത് ഡിസൈന് കണ്ടുപിടിക്കാനുമൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത് അത് എന്നെ ഇന്ന് എൻ്റെ സ്വന്തം വസ്ത്രങ്ങളും എൻ്റെ കുട്ടികളുടെ വസ്ത്രങ്ങളും തയ്ക്കാനുള്ള ഇതിലേക്കും അവരുടെ തൊട്ട് ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലെനിക്ക് വളരെയധികം കൃതാർത്ഥതയുമുണ്ട്